നമസ്കാരം എൻ്റെ പേര് സ്മൃതിയെന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ഒരു രണ്ടുവർഷം മുന്നേ ഞാനെൻ്റെ പ്ലസ് ടൂ പഠനം പൂർത്തിയാക്കിയിരുന്നു പക്ഷേ തുടർപഠനത്തിനു വേണ്ടിയിട്ട് എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ലഭിച്ചിരുന്നില്ല അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പി എം കെ വി വൈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് നമ്മുടെ നൈപുണ്യ വികസനത്തിനും അതുപോലെതന്നെ തൊഴിലില്ലാത്ത അവസരത്തിൽ തൊഴിലവസരങ്ങൾ നേടിയെടുക്കുന്നതിനും നമ്മളെ ഒരു തൊഴിലിലേക്ക് പരിശീലിപ്പിച്ച് വിടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈയൊരു പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടുമെന്ന് വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി എടുത്തത് അപ്പ തന്നെ ഞാൻ ഈ പി എം കെ വി വൈ പ്രോഗ്രാമിലേക്ക് എന്റെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു അപേക്ഷ ഒരു ആറുമാസം മുന്നേയാണ് ഞാൻ സമർപ്പിച്ചത് ആ അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് അറിയാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അപേക്ഷ പെട്ടെന്ന് തന്നെ സ്വീകരിച്ച് അവരൊരു തുടർനടപടിയെടുത്ത് നമുക്കനുയോജ്യമായിട്ടുള്ള ഒരു പഠന മേഖലയിലേക്ക് നമ്മളെ വഴിതിരിച്ചുവിടുന്നതാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആറുമാസം മുന്നേ ആ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ഇപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല എന്നതാണ് വാസ്തവം എൻ്റെ ഞാൻ കൊടുത്ത എൻ്റെ ആ ഒരു അപേക്ഷയുടെ പുരോഗതി എന്താണെന്ന് അതായത് അത് എന്താണ് അത് പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിന് ഇനിയും കാലതാമസം എടുക്കുമെന്നോ എന്നുള്ള കാര്യം എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതിനാൽ എൻ്റെ ഒരു ഈയൊരു മൂല്യനിർണയ ഐഡിയും എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാല് അക്കങ്ങളും പരാമർശിച്ചു തരുന്ന സമയത്ത് എനിക്ക് ഈയൊരു അപേക്ഷ എൻ്റെ ഒരു അപേക്ഷ ഇങ്ങനെയാണ് എൻ്റെ ഒരു ആ അവസ്ഥ അപേക്ഷയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മൂല്യനിർണയ ഐ ഡി എന്ന് പറയുന്നത് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് രണ്ട് നാല് നാല് എട്ട് ഒമ്പത് എട്ട് ആറ് ആറ് പൂജ്യം രണ്ട് മൂന്ന് എന്നാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവസാനത്തെ നാല് അക്കങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നാല് രണ്ട് ആറ് എന്നാണ് ഈ ഒരു രണ്ട് ഘട്ടങ്ങളും അല്ലെങ്കിൽ ഘടനകളും വെച്ചിട്ട് എനിക്കെൻ്റെ ഈ ഒരു പി എം കെ വൈ പ്രോഗ്രാമിലേക്ക് ഞാൻ അപേക്ഷിച്ച ആ ഒരു അപേക്ഷയുടെ നില എനിക്കൊന്നു പറഞ്ഞുതരണമെന്ന് എൻ്റെ ആ ഒരു അതിൻ്റെ സാ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു നില എങ്ങനെയാണെന്ന് എനിക്കൊന്നു അറിയിച്ചു തരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു